സ്കൂളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ നാല് വിഷയങ്ങളാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഇ വി എസ്സ് മലയാളം മേക്സ് ഇംഗ്ലീഷ് ഈ നാല് വിഷയങ്ങളാണ് തേഡ് സ്റ്റാൻ്റേഡിൽ സ്റ്റാൻ്റേഡ് സ്റ്റുഡൻസ് പഠിക്കുന്നത് അതുപോലെ തന്നെ നല്ല സാറന്മാരാണ് ടീച്ചേഴ്സാണെന്നുണ്ടെങ്കിലും നല്ല സ്വഭാവം ഉള്ളവരാണ് കുട്ടിൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അവർ എല്ലാ സബ്ജെക്റ്റും പറഞ്ഞു കൊടുക്കുന്നത് ചെറിയ കളികളിലൂടെയും തമാശയിലൂടെയും എല്ലാം കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് മേത്സിലാണ് മേത്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഈർക്കിളും തീപ്പെട്ടി കൊള്ളികളും എല്ലാം ഉപയോഗിച്ചിട്ട് എണ്ണൽ സംഖ്യ പഠിപ്പിക്കുന്നു വൺ വൺ റ്റു ഹൺഡ്രഡ് വരെ എണ്ണാനും എഴുതാനും എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രകൃതിയെ കുറിച്ചിട്ടാണ് ഇവിഎസ്സിൽ പഠിപ്പിക്കുന്നത് ബട്ടർഫ്ലൈ എങ്ങനെ ഉണ്ടാവുന്നു പ്യൂപ്പയാണ് പ്യൂപ്പ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് അതിൽ ലാർവയാവുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവര്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ആണെന്നുണ്ടെങ്കിലോ ഒക്കെ കുറേ സ്റ്റോറികൾ ഉണ്ട് പാട്ടുകൾ ഉണ്ട് ഇതെല്ലാം അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നു